ആ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ ഇതാരാണ് സംസാരിക്കുന്നത് ഓക്കെ എത്രാം ക്ലാസ്സിലേയ്ക്കാണ് ഓക്കെ ഇവിടെ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേരുള്ളതുകൊണ്ട് രണ്ട് പേർക്കും കൂടി ഒരു ഇരിപത്തയ്യായിരം ഡൊണേഷൻ ആയിട്ട് അടക്കേണ്ടിവരും രണ്ട് പേരുള്ളതുകൊണ്ട് അത്രയും മതി പിന്നെ സ്ക്കൂളിൽ ട്യൂഷൻ ഫീ വരുന്നത് യു കെ ജിയിലേക്ക് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് രൂപയാണ് പിന്നെ സെക്കൻറ് സ്റ്റാന്റേർഡിലേക്ക് ആണെങ്കിൽ പതിനഞ്ച് വരും കേട്ടോ എവിടെ നിന്നാണ് ബസ്സിൻ്റെ കാര്യം ബസ്സിലാണോ കൊച്ചിനെ വിടാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ബസ്സ് സർവ്വീസ് എവിടെയാണ് വീട് എവിടെയാണ് ഓക്കെ അവിടേയ്ക്ക് ബസ്സുണ്ട് അപ്പം ബസ്സ് ഫീയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തിനെ ഡിപെൻറ് ചെയ്തിട്ടായിരിക്കുന്നത് അത് ഇന്ന സ്ഥലത്ത് ഇന്നവരെ എന്നല്ല സ്ഥലത്തിൻ്റെ ദൂരപരിമിതി അനുസരിച്ചാണ് അത് ഇതാക്കുന്നത് അപ്പോൾ കമ്പളക്കാടിൽ നിന്നാണെങ്കിൽ അധികം ദൂരം ഇല്ലല്ലോ അപ്പോൾ ഒരു അറുന്നൂറ് രൂപ മന്തിലി തന്നാൽ മതിയായിരിക്കും പിന്നെ ബുക്കിന് ആ ഒരു കുട്ടിക്ക് മന്തിലി അറുന്നൂറ് രൂപ പിന്നെ അതേപോലെത്തന്നെ ബുക്കിന് എക്സ്ട്രാ ഫീ വേണം കേട്ടോ ബുക്കിന് എൽ കെ ജിയിലുള്ള കുട്ടിക്ക് ആയിരം രൂപയും യു കെ ജിയിലുള്ള കുട്ടിക്ക് ആയിരത്തി മുന്നൂറ് രൂപ അല്ല സെക്കൻറ് സ്റ്റാന്റേർഡ് അല്ലേ പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസിനൊക്കെ അപ്പം അപ്പം പറയും കേട്ടോ പൈസ ആനുവൽഡേയിനൊക്കെ എക്സ്ട്രായാണ് ക്യാഷ് പേ ചെയ്യുന്നത് അതേപോലെത്തന്നെ അല്ലല്ല യൂണിഫോം ഇവിടെ നിന്ന് തന്നെയാണ് ക്യാഷ് തന്നിട്ടുണ്ട് ക്യാഷ് തന്നാൽമതി കുട്ടിക്കുള്ള യൂണിഫോം ബെൽറ്റ് ടാഗ് ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എന്നാണ് വരുന്നത് കൊച്ചുങ്ങളെ ചേർക്കാൻ അതേപോലെത്തന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ വേറെ സ്കൂളിൽ നിന്ന് വരുന്നതല്ലേ ജസ്റ്റോരു എക്സാം പോലെ എന്തൊക്കെ അറിയാമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ്റെ പ്രൊസീജിയർ ചെയ്യുന്നത് ആ ഓക്കെ മൺണ്ടേ വന്നാൽമതി എന്നാൽ താങ്ക് യൂ താങ്ക് യൂ